ഇപ്പോൾ കായികപരമായിട്ടുള്ള എന്താ പറയുക ആരോഗ്യങ്ങൾ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയ്ക്കുള്ള ആരോഗ്യവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമ്മള് നോക്കുമ്പോൾ എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യപരമായിട്ടിപ്പോൾ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി കായികപരമായിട്ട് ഇപ്പോൾ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഓടുന്നവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ആരോഗ്യം അതായത് ശ്വാസകോശം അങ്ങനെയുള്ള കാര്യങ്ങള് ഇപ്പോൾ ശ്വസമൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല രീതിക്ക് ബ്രീത്തിങ്ങ് പ്രോബ്ളംസൊന്നും അധികം അങ്ങനെ ഉണ്ടാകുമെന്നു തോന്നുന്നില്ല കാരണം അവർക്ക് നല്ല കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കൂടാതെ അവർക്ക് എന്താ പറയുക മനസികമായിട്ടൊക്കെ നല്ല സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നല്ല ഏകാഗ്രതയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവർക്ക് ഒരു സ്ഥലത്തേക്ക് നല്ല രീതിയ്ക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിനെപ്പറ്റി പ്രവർത്തിക്കാനും അതിന് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ കായികപരമായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക ഡെയിലി ചെയ്യുന്നതിനോടനുസരിച്ച് അവർക്ക് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടും അതായത് നല്ല സ്ട്രെങ്ത്തുണ്ടാകും നല്ല ഇമ്മ്യൂണിറ്റി പവർ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എന്താ പറയുക ഓൾ മോസ്റ്റ് സ്പോർട്സായിക്കോട്ടെ ആർട്സായിക്കോട്ടെ കായികപരമായിട്ടാണെങ്കിലും എന്താ പറയുക കലാപരമായിട്ട് ഒരുപാട് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാനാക്കെ ഇവർക്ക് ഇതിലൂടെ സാധിക്കും